അ ഇത് സ്കാൻ ചെയ്തത് കൂടാതെ ഒരു അൾട്രാസൗണ്ട് കൂടെ ചെയ്യണം അത് അൾട്രാസൗണ്ട് ചെയ്യുന്ന ഒന്ന് ഓഫീസ് ഉണ്ട് അവിടെ ചെന്നിട്ട് പൈസ അടച്ചിട്ട് അവിടെ വലിയ പ്രശ്നം ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ വയറിൽ ഒരു മെഷീൻ വെച്ച് വയറിന്റെ ഭാഗത്ത് എല്ലാം കൺ അവിടെ ബോർഡിൽ ത്തെളിഞ്ഞ് അത് കണ്ടുപിടിക്കുമെന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ല പേടിക്കേണ്ട ആ അല്ല പേടിക്കേണ്ട കൂടെ ആര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല അൾട്രാസൗണ്ട് ചെയ്യൂന്നതിന് പേടിക്കാനൊന്നുമില്ല അവർ സ്കോപ്പ് പോലത്തെ ഒരു സാധനം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഞരക്കി അവർ വയറിനകത്തെ സാധനം അവിടെ കമ്പ്യൂട്ടർ വഴി അവർ കണ്ടുകൊണ്ടിരിക്കും നമുക്കും കാണാം വയറ്റിനകത്തിൽ എന്ത് ഉണ്ടെന്നും എങ്ങനെ ഉണ്ട് മുഴ ഉണ്ടോ എങ്ങനെ ഉണ്ടെന്ന് കണ്ടുപിടിക്കും അത് നമുക്കും അവടെ കിടന്നുകൊണ്ട് തന്നെ നമുക്കും കാണാം സ്ക്രീനെ കണ്ടുപിടിക്കും അതിന് പേടിക്കുകയൊന്നും വേണ്ട ആ സ്കാൻ സ്കാൻ ചെയ്യുന്നതും കുഴപ്പമില്ല സ്കാൻ ചെയ്യാൻ അല്ല കുഴപ്പമില്ല പേടിയുണ്ടെങ്കിൽ ഞാൻ വരാം പേടി ഉണ്ടെങ്കിലേ ഞാൻ വന്ന് എല്ലാ കാര്യത്തിലും വന്ന് സഹായിക്കാം ആ ആ എപ്പം ഒരു ഇല്ല ഒരു രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് ഒരു ഉച്ച ആകുമ്പോഴത്തേനും പോരൂ എന്നെ അറിയിച്ചാൽ മതി എപ്പം വരും എന്നുള്ളത് കേട്ടോ ഞാൻ അവിടെ പ്രതീക്ഷിക്കാമേ ഹോസ്പിറ്റലിൽ തന്നെ നിൽക്കാം ആ ശരി ആ